ക്ലിപ്കാർഡില് ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നില്ല എന്താണ് ഡിലെ കാണിക്കുന്ന് ക്ലിപ്പ്കാർഡ്കാര് നല്ല ക്ലിയറായിരുന്നതാണ് എല്ലാം കൃത്യതയോടെ എത്തുന്നതാണ് ദിവസം ഒന്നും താമസിക്കില്ല ഞാനാ ഓഡറ് ചെയ്തിട്ട് പെട്ടന്ന് കിട്ടുവല്ലോ എന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത് ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലേ ഇത് എന്തോന്നാണ് എന്തുപറ്റി എന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ഓൺലൈനില് കയറി ഒന്ന് നോക്കിനോക്കാം ഫ്ലിപ്പ് കാർഡിൻ്റെ ഇത് എടുത്തുനോക്കാം അപ്പോൾ എന്തായാലും അറിയാൻ സാധിക്കും അവരുടെ ഓഡറും എല്ലാം കറെക്റ്റ് ആയിരുന്നു ഇത് എന്തു പറ്റി എന്നൊന്നും അറിയാന് പാടില്ലല്ലോ എന്തായാലും നോക്കിയിട്ട് വാ ആ അതില് ഡെലിവറി ആയിട്ടാണല്ലോ കാണിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത് ബോ ആ കൊണ്ടുവരുന്നവരുടെ ഡിലെ ആണോ എന്തോ ഓഹ് പൈസയടച്ചുപോയതാണല്ലോ ഇനി ഇതിനെ തിരിച്ച് റിട്ടേൺ അടക്കാനും പറ്റില്ലല്ലോ റിട്ടേൺ വിടാനും പറ്റില്ല ആ എന്തായാലും വരട്ടെ നോക്കാം ആ ബോയിയെ ഒന്ന് വിളിച്ചാൽ അറിയാന് പറ്റുമോ അത് നോക്കാം ഫോണൊന്ന് എടുക്കുമായിരിക്കും എന്തായാലും വിളിച്ചുനോക്കാം എന്തേ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം വരും എന്നുള്ളതുകൊണ്ടാണ് അതിൽ തന്നെ ഞങ്ങൾ ഓഡറ് എടുത്ത് കൊടുത്തത് എന്നിട്ടും ഇത്രയും ഡിലെ ആകുമെന്ന് വിചാരിച്ചില്ല അത്യാവശ്യം ഒക്കെ സാധനം ആയതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിച്ച് ഓഡറ് ചെയ്തത് ഓഡറില് ഇങ്ങനെ കാണിച്ചിട്ട് ഡേറ്റും കഴിഞ്ഞ് ഇത്രയും ദിവസവും ആയി എൻ്റെ പൈസ നഷ്ടപ്പെടുകയില്ലെ അതുകൊണ്ടാണ് വെയ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ ഓഡറ് ചെയ്യുമ്പോൾ ഇത്രയും ഡിലെ ആക്കാമോ ഡിലെ ആകില്ല എന്ന് വിചാരിച്ചാണ് ഓഡറ് കൊടുത്തത് ഫ്ലിപ്പ്കാർട്ട് നല്ലൊരു ഓൺലൈൻ ആയിരുന്നു എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട് എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിയില്ല എല്ലാ സാധനവും ഞാ ഫ്ലിപ്പ് കാർട്ടിലാണ് ഓഡറ് ചെയ്യുന്നത് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചപ്പോൾ വളരെ മോശം ഡെലിവറി ആയിപ്പോയി എന്താണിങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഓൺലൈനിൽ കാണിക്കുന്ന ഡേറ്റിന് നമുക്ക് കിട്ടാറുള്ളതാണ് ഇത് അതും കഴിഞ്ഞ് ഡേറ്റ് നീങ്ങിനീങ്ങി പോയി എന്തായാലും ഒര് നാലഞ്ച് ദിവസം ഡിലെ ആയി അത്രയും ദിവസം ഞാന് പ്രതീക്ഷിച്ചതേ ഇല്ല എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നതാണ് ഒരുപാട് ദിവസം അത് അത്യാവശ്യ സാധനവും ആയിരുന്നു എന്തായാലും എന്തായാലും വരട്ടെ ഇനി വന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത് തന്നെ ചെയ്യാം എന്തായാലും ഓഡറ് കൊടുത്ത് പൈസയും അടച്ച കാര്യം അല്ലേ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല ഇനി ഓഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം